ഹലോ ക്യാബ് ഡ്രൈവറല്ലെ ആ ഞാൻ ഒരു ക്യാബ് ബുക്ക് ചെയ്യാന് വേണ്ടി വിളിച്ചതാണെ ആ നാളത്തേയ്ക്കാണ് നാളത്തേയ്ക്ക് നാളെ രാവിലെ അപ്പോൾ ഒരെട്ട് മണി ആകുമ്പത്തേക്കും സ്ഥലം നടക്കാവ് ഞാൻ ലൊക്കേഷന് ഞാന് വാട്സ്അപ്പ് ചെയ്തു തരാം ഞാനിപ്പോൾ ഇത് പോകേണ്ടത് നമുക്ക് തിരുവനന്തപുരത്തേയ്ക്കാണു പോകേണ്ടത് അവിടെ നിന്ന് അമ്മേനെ കൂട്ടാന് വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പം ഞാനും എന്റെ ഒരു സുഹൃത്തും രാവിലെ എട്ട് മണിയാകുമ്പോൾ ഇവിടെയുണ്ടാകും അപ്പോൾ ഏകദേശം എത്ര മണിയാകുമ്പോഴാണ് അവിടെയെത്തുക വാ രാത്രിയാകുമല്ലേ ആ ഹ ഹ കുഴപ്പമില്ല കുഴപ്പമില്ല അപ്പം ഏകദേശം എത്ര റെയ്റ്റ് വരുമെന്നൊന്ന് നോക്കിയിട്ട് പറയാന് പറ്റുമോ ആ ഇവിടെനിന്ന് നടക്കാവിൽ നിന്ന് തിരുവനന്തപുരം വരെ പിന്നവിടുന്ന് റിട്ടേണ് ഇങ്ങോട്ടും ആ കണക്ക് കൂട്ടിയിട്ട് പറഞ്ഞാൽ മതി വേറെ എവ്വിടെയൊന്നും ഇല്ല നമുക്ക് അവിടെ പോയിട്ട് കൂട്ടുക വരിക വേറെ സ്റ്റേയും കാര്യങ്ങളൊന്നുമില്ല നമ്മൾ വേഗം പോയിട്ട് വേഗം തന്നെ വരുന്നു അത്രയേ ഉള്ളൂ ആ അതെ അതെ അതെ അ കണക്ക് കൂട്ടിയിട്ട് എനിക്ക് വാട്സ്പ്പില് അയച്ചു തന്നാൽമതി ഇല്ലെങ്കിൽ നാളെ വരുമ്പോൾ പറഞ്ഞാലും മതി കുഴപ്പമില്ല ആ ഓക്കേ ഓക്കേ നാളെ എട്ട് മണി ആകുമ്പോൾ കേട്ടോ മറക്കണ്ട ഓക്കേ